ഞാനൊരു പെൺകുട്ടിയാണ് സോ എനിക്ക് തുന്നല് ഭയങ്കരം ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഒരു പെണ്ണായ ഞാന് എനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കുഞ്ഞുങ്ങൾ ഞങ്ങള്ക്ക് ഉണ്ടാകുമ്പോള് എനിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങള് അവർക്കൊക്കെയൊരു തുണി തുന്നുകയെന്ന് പറയുമ്പോള് അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തയ്യല് അല്ലെങ്കില് അങ്ങനെയുള്ള തുന്നല് അങ്ങനെയുള്ള സംഭവങ്ങള് നമ്മള് പഠിച്ചിരിക്കേണ്ടത് ഏറ്റവും നല്ലയൊരു കാര്യമാണ് പിന്നെ നെയ്ത് എന്ന് പറയുന്ന നമ്മുടെ സാരിയുടെയൊക്കെ ഒരു സാരിയുടെയിത് അത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എനിക്ക് പഠിക്കാനും ആഗ്രഹമുണ്ട് കുറച്ച് പഠിച്ചിട്ടുമുണ്ട് അപ്പം അത് ചെയ്യുന്ന സമയത്ത് നമ്മള് അത്യാവശ്യമായിട്ടുള്ളൊരു ഇതെന്ന് പറയുമ്പോള് ബേസിക്ക് ആയിട്ടുള്ളൊരു തുന്നല് നമ്മള് അറിഞ്ഞിരിക്കണം പിന്നെ ഈ സാരീസ് അങ്ങനെയുള്ള സംഭവങ്ങള് നമ്മളിപ്പോള് ഒരു ഓർഡർ കൊടുക്കാനും അങ്ങനെയുള്ള സംഭവങ്ങള് നമ്മള് ചെയ്യുകയാണെങ്കില് നമ്മള് നെയ്ത്തിന് വേണ്ടി നമ്മള് പോയി പഠിച്ചിരിക്കേണ്ട സ്ഥലങ്ങള് കർണ്ണാടക അങ്ങനെയുള്ള ആന്ധ്രാപ്രദേശ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് പിന്നെ ചെന്നൈ ഇവിടെയൊക്കെ ഇത് പഠിപ്പിക്കുന്ന സം ടൂട്ടേഴ്സ് അങ്ങനെ ട്യൂട്ടോറിയൽസ് മാതിരിയുള്ള സംഭവങ്ങളുണ്ട് അപ്പോള് നമുക്ക് അവിടെ ചെന്നൊക്കെ നെയ്ത്ത് പഠിച്ചെടുക്കുകയാണ് ഏറ്റവും വലിയ കാരണം ഇപ്പോഴത്തെ കാലത്ത് ഹാൻഡ്ലൂംസ് ആണ് ഏറ്റവും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതല് ആൾക്കാര് പൈസ കൊടുത്തു മേടിക്കുന്നത് ഇവൻ റിച്ച് വലിയ ആൾക്കാരാണെങ്കിൽ പോലും ഒരു ഒക്കേഷന് അല്ലെങ്കില് അതൊരു ഒരു ഒക്കേഷന് ഇടുന്ന സമയത്ത് കൂടുതലും ഹാൻഡ്ലൂം കളക്ഷൻസ് ആണ് അവര് ഉപയോഗിക്കുന്നത് സാരീസ് ഇപ്പം കാഞ്ചിപുരം സാരീസ് അല്ലെങ്കില് രാജ്ധാനി സാരീസ് മറാഠി സാരീസ് അങ്ങനെയുള്ള സാരീസൊക്കെ ഇതൊക്കെയെന്ന് പറയുമ്പോള് നെയ്തെടുത്ത സാരീസാണ് അപ്പം നമ്മളിത് പഠിച്ചിരിക്കേണ്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് വളരെ നല്ലയൊരു കാര്യമാണ് ഇപ്പോഴത്തെക്കാലത്ത് നിങ്ങള്ക്കറിയാം ഒരു സാരിയുടെ ബ്ലൗസ് തന്നെ വളരെ മീൻസ് അത് തയ്ച്ച് തയ്യല്ക്കാർക്കറിയാം വെറും വേറെയൊന്നും വേണ്ട സാരിയുടെ ബ്ലൗസ് മാത്രം നമ്മള് തയ്ച്ചുകൊടുത്താൽ തന്നെ നമുക്കൊരു മാസം നല്ലയൊരു വരുമാനം കിട്ടും അല്ലേ അപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തുന്നല് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കാരണം അതുകൊണ്ട് വരുമാനം കൂടുകയെയുള്ളൂ നമുക്കൊരിക്കലും അത് തുന്നല് അല്ലെങ്കിൽ നെയ്ത്ത് അങ്ങനെ നമുക്ക് കാര്യങ്ങള് അറിഞ്ഞിട്ട് നമ്മളിപ്പോള് ഒരു കല്യാണം കഴിഞ്ഞിട്ട് നമ്മളത് ചെയ്യാതിരിക്കരുത് നമ്മുടെ ഹസ്ബൻഡിനെ ഹസ്ബൻഡിനോട് പറഞ്ഞ് നമ്മള് സ്വന്തമായിട്ടെങ്കിലും നമ്മളൊരു സ്റ്റോര് തുടങ്ങി നമ്മളത് ചെയ്തിരിക്കണം കാരണം ഹസ്ബൻഡിൻ്റെ അല്ലെങ്കില് നമ്മുടെ ഫാമിലിയുടെ ഒരു പിന്തുണയുണ്ടെങ്കില് നമ്മള് ആ ഒരു സംഭവം അതൊരു ക്ലോത്തിങ് സെൻ്ററായിട്ടോ അല്ലെങ്കില് നെയ്ത തുണിയുടെയോ അല്ലെങ്കില് എന്തെങ്കിലും സിൽക്ക് ടെയിലറിങ്ങ് അങ്ങനെയുള്ള സംഭവങ്ങള് ഇടുകയാണെങ്കില് നമുക്ക് മുന്നോട്ടുള്ളത് നല്ല രീതിയില് നമുക്ക് തയ്ച്ചും നമുക്കത് കൊടുക്കാം നമ്മള് പഠിച്ച കാര്യങ്ങള് നമുക്ക് മറക്കാതിരിക്കാം ചിലപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങള് മീഡിയാസില് സോഷ്യൽ മീഡിയാസിലൊക്കെ വയറലായി കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഇൻറർനാഷണലാണെങ്കിൽ പോലും നമുക്ക് ക്ലോത്തുകള് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റുമെന്നാണ് എൻ്റെ ഒരിത് അപ്പം ഞാൻ ഒരു ഞാൻ എല്ലാവരോടും പറയുന്നത് ഇങ്ങനത്തെയൊക്കെ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കില് ഇങ്ങനത്തെയൊക്കെ ഒരു ഇത് നിങ്ങള്ക്കുണ്ടെങ്കിൽ എക്സ്ട്രാ ടാലൻറ് ഉണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ കയ്യിൽ വെയ്ക്കാതെ തന്നെ കല്യാണം കഴിഞ്ഞുകഴിയുമ്പോൾ അല്ലെങ്കില് കുഞ്ഞുങ്ങളായി കഴിയുമ്പോള് അത് നിർത്തിവെയ്ക്കാതെ തന്നെ നിങ്ങളത് മാക്സിമം ഉപയോഗിച്ചത് ട്രൈ ചെയ്ത് മറ്റുള്ളവർക്കത് പ്രചോദനമാക്കി ചെയ്യണമെന്നാണ് എൻ്റെയൊരു അഭിപ്രായം